പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി പത്തൊൻപത് ആറ് പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒന്ന് ഒന്ന് രണ്ടായിരം മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട്